പ്രപഞ്ചത്തെ കുറിച്ച് പറയുകയാണെങ്കില് പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോള് അത് ഒരു നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു നമ്മളുടെ മനസ്സിനുതന്നെ താങ്ങാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പോലും എനിക്ക് അതിശയം തോന്നാറുണ്ട് പിന്നെ നിഗൂഢതകളെന്നു പറഞ്ഞാല് പ്രപഞ്ചത്തെ കുറിച്ച് ഒരുപാട് നിഗൂഢതകളുണ്ട് അത് അതിനെ കുറിച്ച് കൂടുതല് അറിവില്ലെങ്കിലും ചില ചില കാര്യങ്ങള് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എനിക്കത് ആകർഷകമായി തോന്നാറുമുണ്ടായിരുന്നു പിന്നെ ചില നിഗൂഢതകളെ കുറിച്ച് അന്വേഷിക്കുമ്പോള് അത് ആകർഷകമായി തോന്നും അതെങ്ങനെയാണ് ഇതെങ്ങനെ ഉണ്ടായത് ഇതെങ്ങനെയാണിത് സംഭവിച്ചത് പ്രപഞ്ചം ഒരു സൃഷ്ടി തന്നെയാണ് അതിൻറ്റെ നിഗൂഢതയും പ്രപഞ്ചത്തേയും കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കുറവായതിനാൽ ഞാൻ നിർത്തുന്നു